നവജാത ശിശുക്കൾ ശിശുക്കൾക്കുളള വൃത്തിയും ശുചിയും അവരുടെ അമ്മമാരിൽ തുടങ്ങണം ആദ്യമായി അവരുടെ അമ്മമാർ ഏറ്റവും വൃത്തിയില് വസ്ത്രങ്ങൾ ധരിക്കുകയും ശരീരശുദ്ധി വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന കിടത്താൻ ഉപയോഗിക്കുന്ന തുണിയും മറ്റും ദിവസവും കഴുകിയതു കീട നാശികരണി മുക്കി വെയിലത്ത് ഉണക്കി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂര്യപ്രകാശത്തിൽ ഉണക്കിയ തുണികൾ വേണം ഉപയോഗിക്കുവാൻ കുറേ നാളായി കഴുകി അടുക്കി സൂക്ഷിച്ചിരുന്ന തുണി ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ള തുണികൾ വെയിലത്തിട്ട് നല്ലതുപോലെ വെയില് കൊള്ളിച്ചിട്ട് ഉപയോഗിക്കണം കുഞ്ഞിൻറ്റെ ദേഹത്ത് കൂടുതൽ അന്തരീക്ഷത്തിൽ വിഷമങ്ങൾ വരാതിരിക്കാൻ എണ്ണയോ ലേപനങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ആര് കാണുന്നവരെല്ലാം കുഞ്ഞുങ്ങളെ എടുക്കുകയും ലാളിക്കുകയും മുത്തം കൊടുക്കുകയും ചെയ്യുന്നതിൽ പതിവ് നമ്മുടെ നാട്ടിലുണ്ട് അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് മറ്റാരും അവരുടെ കൈയിൽനിന്ന് വൃത്തികെട്ട കൈകൊണ്ട് ആഹാരം കൊടുക്കാതെയും നുള്ളി കൊടുക്കാതെയും മറ്റും ശ്രദ്ധിക്കണം കീടനാശിനികൾ ആയിട്ടുള്ള കീടനാശിനികൾ കുഞ്ഞിൻ്റെ തുണി കഴുകാനും കുളിപ്പിക്കാനും ഉപയോഗിക്കണം ധാരാളം സൂര്യപ്രകാശവും കാറ്റും കടക്കുന്ന മുറികൾ വേണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ വലിയ ശബ്ദങ്ങളും പേടിപ്പിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷവും കുഞ്ഞുങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്